ഈ സമയങ്ങള് സാധാരണ നമ്മള് എന്താന്നെച്ചുകഴിഞ്ഞാ നമ്മള് കൂടുതലും വേനൽക്കാലൊക്കെ യായതുകൊണ്ടും അങ്ങനത്തെ സമയൊക്കെയായതുകൊണ്ട് കൂടുതലും രാവിലെ പകൽ സമയങ്ങളില് നമ്മള് ഇടയ്ക്ക് കൂട്ടുകാരുമൊത്ത് പുറത്തൊക്കെ പോകും അങ്ങനെ പോകുമ്പോ എന്താന്ന് വച്ചുകഴിഞ്ഞാ നമ്മള് അവരുടേതായ കാഴ്ച്ചപ്പാടില് അതായത് ഇപ്പോൾ നമ്മളവരുടെ കൂടെ നടക്കുമ്പോൾ ഏതേലും പറമ്പിലേക്ക് പോകുക അവിടുന്ന് മാങ്ങ പേരയ്ക്ക ചാമ്പയ്ക്ക അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പറിക്കാ എന്നിട്ട് കൂട്ടുകാരുമൊത്ത് അവിടെ പറമ്പിത്തന്നെ ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ നമുക്കൊരു അവരുടേ കൂടെ ഇരുന്നു കഴിക്കുന്നെയൊക്കെ ഒരു സന്തോഷം ഉള്ള ഒരു കാര്യമാണ് പിന്നേ കൂടുതലും ചൂട് സമായൊക്കെയാകുമ്പോൾ നമ്മള് ഉച്ചയൊക്കെ ആകുമ്പത്തേക്കും വീട്ടിപോയി അവിടുന്ന് പാരൻസിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവർക്കും സന്തോഷാണ് അതൊക്കെ നല്ലൊരു അനുഭവമാണ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയെയൊക്കെ കാണാൻ കിട്ടുന്ന ഒരു സമയംനൊക്കെ പറഞ്ഞാൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കത് ഭയങ്കരം കൊച്ചുമക്കളൊക്കെയായിട്ട് നല്ലൊരു സന്തോഷം കിട്ടുന്നൊര് ഇതാണ് അതുപോലെത്തന്നെ നല്ല എന്താപറയാ നല്ലൊരു സമയം തന്നെയാണയാണത് പിന്നേ നമ്മള് പറമ്പീക്കൂടെകെടന്ന് പോകുമ്പോ അതും ഇതും എല്ലാം പറിച്ച് അവരുടെ കൂടെ എന്താപറയുക ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെയൊക്കെ നടക്കുമ്പോഴത് റോഡിൽകൂടെ കാണുന്ന അത് പറിക്കുക അങ്ങനെയൊക്കെ നടന്നു നമ്മൾ അവർടെകൂടെ നടക്കുന്നയൊക്കെ നമുക്കൊരു പ്രത്യേക എന്താപറയുക ഒരു സന്തോഷമുള്ള ഒരു സമയം തന്നെയാണ് എന്തുകൊണ്ടും ഞാന് നല്ലോണം ഒരാസ്വാദിച്ച് നടന്നൊരൂ സമയം തന്നെയാണ് ഈ ഒരു കാലം